ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അപ്പം ആദ്യമായിട്ട് ചെന്നപ്പം പേരെന്തായിരുന്നു നിർമ്മൽ ഓക്കെ നിർമ്മൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൽ നമ്മുടെ രൂപതയിൽ ഈ നമ്മുടെ വിവാഹത്തിന് ഉൾപ്പെടുന്നവരോടൊക്കെ ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന് എന്തായാലും കൂടണം ആ ക്ലാസ്സിന് കൂടിയിരുന്നോ ആ ആ ഓക്കെ അങ്ങനൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന് എന്തായാലും കൂടണം അതിന് ശേഷം കല്യാണ സെ എന്നിട്ട് ക്ലാസ് കൂടിയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം ആ ഓക്കെ സർട്ടിഫിക്കറ്റ് തരണം അത് കഴിഞ്ഞിട്ട് അത് നമ്മളെ കല്യാണത്തിൻ്റെ സമയത്ത് കല്യാണം എന്നാണ് നടക്കുന്നത് ഇരുപത്തേഴാം തീയതി അല്ലേ വധു എവിടുന്നായിരുന്നു പത്തനംതിട്ടയിൽ നിന്നോ അലീഷ അല്ലേ ഓക്കെ അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വധുവിൻ്റെ അലീഷേനെ ഇടവകയിൽ നിന്ന് അവിടുന്ന് അച്ചൻ്റെ ഒരു ലെറ്റർ വാങ്ങിക്കണം ആ ലെറ്റർ എന്തായാലും കൊണ്ടുവരണം പിന്നെ അതിൻ്റെ ഒരു ലെറ്റർ കൊണ്ടുവരണം പിന്നെ പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ വിളിച്ച് പറയണം ഇത് നേരത്തെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് അപ്പം അതനുസരിച്ച് അത് അതനുസരിച്ച് പള്ളിയിൽ വിളിച്ചുപറയണം പിന്നെ

അത് ഞാൻ വിളിച്ചുപറഞ്ഞോളാം എന്നോട് വന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം ആ ആ മൂന്ന് പ്രാവശ്യം ആ അതുതന്നെ മൂന്ന് പ്രാവശ്യം അത് മൂന്ന് പ്രാ അത് നിങ്ങൾ ത നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാരിഷ് ഹാളിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കാം അത് സെക്രട്ടറിയോട് സംസാരിച്ചാൽ മതി പറഞ്ഞുതരും ആ എന്നോട് അത് കപ്യാരോട് ചോദിച്ചാൽ മതി കപ്യാർ പറഞ്ഞുതരും അത് വീട്ടിൽ ചോദിച്ചാൽ മതി വീട്ടിൽ അപ്പന് അപ്പന് അറിയാമെന്നാണ് എന്നോട് പറഞ്ഞത് ടോം ആ ആ അപ്പം എടുക്കാം അങ്ങനത്തെ ഒരു കുഴപ്പം ഒന്നുമില്ല പള്ളിയിൽ പിന്നെ കുർബാനയുടെ സമയത്ത് ക്യാമറാമാനോട് ഒരു സ്ഥലത്ത് നിക്കണമെന്നും ഓടി ഓടി കളിക്കാൻ പറ്റില്ല പിന്നെ കുർബാന എത്ര മണിക്കാണ് പത്ത് മണിക്കാണോ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ അങ്ങനെ നടത്താനാണോ ഓക്കെ അങ്ങനെ നമുക്ക് നടത്താം ആ അപ്പം ലെറ്റർ എന്തായാലും വാങ്ങിക്കണം പിന്നെ പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പെങ്കിലും കുമ്പസാരിക്കണം കുമ്പസാരിച്ചിട്ടേ പള്ളിയിൽ വരാവുള്ളൂ ആ കുമ്പസാരിക്കണം അത് പഠിപ്പിച്ച് തരാം ആ അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ പള്ളിയിൽ എത്തുക ആ പിന്നെ ക്യാമറാമാനോട് ഒരു സ്ഥലത്ത് പള്ളിയിലേക്ക് എപ്പോഴും ഓടി ഓടി ചാടി നടക്കൽ അങ്ങനത്തെ ഉള്ള പരിപാടി ഒന്നും സമ്മതിക്കില്ല ഓക്കെ ഇങ്ങനെയാണ് ബ അങ്ങനെ കുഴപ്പം ഒന്നുമില്ല എത്ര പേർക്ക് വേണമെങ്കിലും വരാം പള്ളിയല്ലേ വരാം

ഓക്കെ നമസ്കാരം എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ